എൻ്റെ മാതാപിതാക്കളും പത്താം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ പത്താം ക്ലാസ് വരെ പഠിച്ചതും അമ്മ പ്രീഡിഗ്രിയുമാണ് എന്റെ ചെറുപ്പത്തിലവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നു ചോദിച്ചാൽ തീരെക്കുറവായിരുന്നു അവർക്ക് ഒരു ഹയർ എജ്യൂക്കേഷൻ എന്നു പറയുന്നത് അധികം സ്വപ്നം കാണുന്ന ഒരവസ്ഥയിലായിരുന്നില്ല കാരണം ഓരോ അവരുടെ വീട്ടിലെ സാമ്പത്തിക ശേഷികളും അവരുടെ പണ്ടുകാലത്ത് ഓരോ വീട്ടിലും എട്ടും പത്തും പതിനഞ്ചും മക്കളുള്ള പല വീടുകളുമുണ്ട് അവരെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നു പറയുന്നതൊന്നും അന്നത്തെ സാഹചര്യത്തിലൊരച്ഛനെയും അമ്മേനെയുംകൊണ്ടു പറ്റുന്ന ഒരു മാതാപിതാക്കളെയുംകൊണ്ടു പറ്റുന്ന കാര്യമായിരുന്നില്ല കാരണം അന്നത്തെ സാമ്പത്തിക ശേഷി അങ്ങനെയായിരുന്നു വരുമാനം വരുമാന മാർഗ്ഗം ഇന്നത്തെ പോലെ ജോലികൾ ഐ ടി കമ്പനി സ്റ്റാർട്ടപ്പ് ഇപ്പോള് നമുക്കു സ്വയം ഏണ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ അങ്ങനെത്തെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അന്നുണ്ടായിരുന്നില്ല അന്നവർക്ക് അന്നത്തെ മാതാപിതാക്കളായിരുന്ന ഞങ്ങളുടെ അപ്പനപ്പൂപ്പാന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കാർഷിക വരുമാനങ്ങൾ മാത്രമാണ് കാർഷിക വരുമാനത്തിൽ നിന്നീ പത്തും പതിനഞ്ചും മക്കളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല ഒപ്പം പഠിക്കാൻ കഴിവുണ്ടായിട്ടും തനിക്കു പഠിക്കാൻ കഴിവുണ്ടായിട്ടും വീട്ടിലെ സാഹചര്യം കൊണ്ട് പഠിത്തം ഉപേക്ഷിക്കേണ്ടിവന്ന മാതാപിതാക്കളുണ്ട് വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പഠിത്തത്തേക്കാളുപരി എന്തെങ്കിലും ജോലിയെടുത്തു വരുമാനം കണ്ടെത്തി വീടു നോക്കുക എന്നുള്ള സാഹചര്യത്തില് വളർന്ന പല മാതാപിതാക്കളുമുള്ള കാലമാണ് ഇപ്പോഴത്തെ പല മാതാപിതാക്കളും അതായതൊരു എന്താ ഒരു ഈ നമ്മുടെ തൊട്ടുമുൻപുള്ള തലമുറകളുടെ മാതാപിതാക്കളെല്ലാം അങ്ങനെ അങ്ങനെ തന്നെയുള്ളവരായിരുന്നു വിദ്യാഭ്യാസം വളരെ കുറവാണ് എങ്കിലും അവർക്ക് വിവേകം ബുദ്ധി വിവരം എന്നത് ഇപ്പോഴെത്തെ തലമുറയേക്കാൾ കൂടുതൽ നമ്മുടെ പഴയ പൂർവികർക്കുണ്ട് അവർക്ക് അവർ ജീവിത അനുഭവങ്ങളിൽ നിന്നു പഠിച്ചവരാണ് ഇപ്പോഴത്തെ തലമുറ ബുക്കിൽ നിന്നും സോഷ്യൽ മീഡിയില് നിന്നും ഫോണുകളിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ജീവിത അനുഭവങ്ങൾ ജീവിതത്തിൽ ഓരോ അനുഭവത്തെ നേരിട്ട വിധം അതെല്ലാംവച്ച് അതൊക്കെ നോക്കി പഠിച്ചവരാണവരെല്ലാം അതുകൊണ്ടുതന്നെ നമ്മളേക്കാൾ വിവേക ബുദ്ധി ഒരു ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള നേരിടാനുള്ള ശക്തി എല്ലാം നമ്മളേക്കാള് കൂടുതൽ നമ്മുടെ മാതാപിതാക്കന്മാർക്കാണ് അവർ നേരിട്ട വെല്ലുവിളികളെന്നു ചോദിച്ചാൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിന്റെ നിലനിൽപ്പ് എല്ലാം എല്ലാം വന്നപ്പോഴാണ് അവരല് അവർ പലരും അവരുടെ വിദ്യാഭ്യാസം പോലും വേണ്ടെന്നുവച്ച് കുടുംബത്തിനുവേണ്ടി പോവുന്നത് ഇപ്പോൾ സ്ഥിതി മാറി വരുന്നുണ്ട് പല ഈ ജനറേഷനിലുള്ള പല പല വിദ്യാർത്ഥികളും പല മാതാപിതാക്കളും നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ജോലി ചെയ്യുന്ന ഇത് കാരണമാ പിന്നെ പഴയ മാതാപിതാക്കൾ പോലും ഇപ്പോള് അവർക്ക് അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയാതെ പോയതു തന്റെ മക്കളിലൂടെ സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിത്തന്നെ പലരും മാതാപിതാക്കൾ പലരും തന്റെ മക്കളെ കാശ് കാശിറക്കിയാണെങ്കിലും കാശു കൊടുത്താണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളുടെ ആഗ്രഹത്തിനു പഠിപ്പിക്കാൻ വിടുന്നുണ്ട് അതുതന്നെ അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് കാരണം അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടവരുടെ പേരന്റ്സിൻ്റെ ബുദ്ധിമുട്ടുകൾകൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം ചെയ്യാൻ പറ്റാതെ പറ്റാതെ പോയ കാര്യം അവർ അവർ കഷ്ടപ്പെട്ട് അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു അപ്പോഴാ അവരുടെ മക്കളെ പഠിപ്പിക്കുകയാണ് അപ്പോള് നേരത്തേതിലും സ്ഥിതികൾ ഒത്തിരി മാറി മാറി വരുന്നുണ്ട് വിദ്യാഭ്യാസം എല്ലാവരും തന്നെ നേടുന്ന കാലമാണ് മാതാപിതാക്കളാണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിനധികം എതിർക്കാറില്ല പിന്നെ പഴയ പണ്ടു കാലത്താണെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രശ്നമായിരുന്നു ഒരു പരിധി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല അവർ വിവാഹം കഴിച്ച് അവർ വിവാഹം കഴിച്ച് അവരുടോ ഭർത്താവിൻ്റെ വീട് അല്ലെങ്കിൽ ജീവിതം കുടുംബം കുട്ടികൾ എന്ന എന്നും പറഞ്ഞു മാറേണ്ടതാണ് എന്നും പറഞ്ഞ് എന്നുള്ള പല ചിന്താഗതികളും ഉണ്ടായിരുന്നു ഇപ്പോൾ അതെക്കെ മാറിവന്ന് പെൺകുട്ടികളും പഠിക്കണം പെണ്കുട്ടികൾക്കും സമ്പാദിക്കണം അവരും സ്വന്തം കാലിൽ നിന്നു കുടുംബത്തെ നോക്കണം എന്നുള്ള സ്ഥിതിയൊക്കെ ആയിത്തുടങ്ങി ഇപ്പോൾ പെൺകുട്ടികളെല്ലാം ഇൻഡിപ്പെന്റന്റാണ് സ്വതന്ത്രകളായി അവർ അവരുടെ അവർക്കിഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നു ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നു അതൊക്കെ ചെയ്യാൻ അവർക്ക് അവരെക്കൊണ്ടിപ്പോൾ സാധിക്കുന്നു അതുപോലെ തന്നെ പണ്ടു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു ഒരു ട്രെൻഡ് വന്നാൽ പിന്നെ അതു മാറാൻ ഭയങ്കര പാടാണ് അതായതിപ്പോള് നേഴ്സിംഗ് എന്ന ഒരു ട്രെൻഡ് വന്നാൽ അതു മാത്രമേ കാണുകയുള്ളൂ എവിടെ ചെന്നാലും എവിടെ തിരഞ്ഞാലും നേഴ്സിംഗ് അതുപോലെ തന്നെ അപ്പോള് അല്ലെങ്കിൽ ഇപ്പോള് ചില സ്വയം കുടുംബത്തിനുവേണ്ടി ത്തന്നെ കോഴ്സ് മാറ്റി സെലക്ട് ചെയ്തിരുന്ന മാതാപിതാക്കളുമുണ്ട് ചിലപ്പോള് അവർക്കൊരു അവർക്കിഷ്ടപ്പെട്ടൊരു കോഴ്സ് അതിനിപ്പോള് നമുക്കധികം ഏൺ ചെയ്യാൻ അധികം സാധിക്കില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് പക്ഷേ അതിന് ഏണിംഗ് കുറവാണ് എന്നും പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ജോലികൾ തെരഞ്ഞെടുത്ത പലരുമുണ്ട് പക്ഷെ ഒരു എങ്ങനെ പോയാലും ഒരാളുടെ സന്തോഷം എന്നു പറയുന്നതയാള് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിലാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ കഴിയാത്ത കുറേ പേരുണ്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവരുണ്ട് പണ്ടുകാലത്തെക്കെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ ചെയ്യാൻ പോയാൽ എങ്ങനെ പോകുമെന്ന് മാതാപിതാക്കന്മാർക്ക് ടെൻഷനുള്ളതുകൊണ്ടുതന്നെ അവര് അവരങ്ങനെ വിടില്ല അവരെല്ലാവരും അവര് അവരുടെ അവര് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അവര് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നോക്കി എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ എല്ലാ പെട്ടെന്നു ജോലി കിട്ടുന്ന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെത്തെ ജോലികളൊക്കെയാണ് അവര് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോള് അതിൽ നിന്ന് മാറിയിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള സ്വന്തം ഇഷ്ടത്തില് കോഴ്സ് അവർക്കു താല്പര്യമുള്ള ഇഷ്ടമുള്ള ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കോഴ്സ് പഠിച്ച് അതിലൊരു ജോലി കണ്ടെത്താൻ ഇപ്പോള് പലരും തയ്യാറായി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോള് സ്ഥിതി മാറിയിട്ടുണ്ടോ എന്നു ചോദിച്ചാല് പൂർണമായി മാറിയിട്ടില്ല എങ്കിലും മാറി മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ മാറി വരുന്നുണ്ട് ഇനിയും മാറും